ഹലോ വൈദ്യുതി ബോഡല്ലേ സാറേ എൻ്റെ പേര് മറിയമ്മ ഞാനീ ആലപ്പുഴേന്നാണ് വിളിക്കണത് എനിക്ക് വീട്ടിൽ എപ്പോഴും കരണ്ട് പോകാണ് അപ്പൊരു ബാക്ക് അപ്പ് ജനറേറ്ററിൻ്റെ ആവശ്യമുണ്ട് അപ്പം അത് നിക്ഷേപിക്കാനായിട്ട് ഞാൻ പദ്ധതി ഇടുന്നുണ്ട് വൈദ്യുതി മുടങ്ങുമ്പോളത് ഉപയോഗിക്കുന്നതിന് എന്തെങ്കിലും അധികം ചർച്ചകളോ അതിൻ്റെ പ്രത്യേക താരിഫ് നിരക്കുകളോ ഉണ്ടോ എന്നറിയാനായിട്ടാണ് ചോദിക്കുന്നത് അപ്പം അതിനു അവിടുത്തെ വൈദ്യുതി ബോർഡിനെന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും അസൗകര്യം ഉള്ളതായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ ബാക്ക് അപ്പ് ജനറേറ്റർ വെക്കുന്നുണ്ട് ഇപ്പം കു കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും കരണ്ട് പോകുന്ന സമയത്തു പഠിക്കേണ്ട സമയത്ത് കരണ്ട് പോയാലും പിള്ളേരൊക്കെ ആ സമയത്ത് ഈ ബാക്ക് അപ്പ് ജനറേറ്റർ വെച്ച് പഠനം എളുപ്പമാകാനായിട്ടു സാധി അതിനു വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനൊരു ബാക്ക് അപ്പ് ജനറേറ്റർ വെയ്ക്കാനായിട്ട് പദ്ധതി ഇടുന്നത് അപ്പം അതിന് എന്തെങ്കിലും അധിക ചാർജ്ജുകളോ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വൈദ്യുതി ബോർഡിനോട് ഈ കാര്യം ഞങ്ങൾ ചോദിക്കുന്നത് അപ്പം അതിനെന്തെങ്കിലും വൈദ്യുതി ബോർഡിൻ്റെ അറിവിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം ചോദിക്കുന്നത് അപ്പം അതിനെന്തെങ്കിലും പ്രത്യേക അധിക ചാർജ്ജുകളോ താരിഫ് ചാർജ്ജുകളോ നിരക്കുകളോ വല്ലോ ഈടാക്കോ ഇല്ലയോ എന്നറിയാനായിട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം ചോദിക്കുന്നത് വൈദ്യുതി ബോർഡിനോട് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും അതുമായിട്ടു ചെയ്യാൻ വൈദ്യുതി ബോർഡ് എന്തെങ്കിലും താത്പര്യ കുറവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ അടിക്കടി ഇങ്ങനെ കറണ്ട് പോകുന്നത് കൊണ്ടാണ് വീട്ടിൽ കുട്ടികൾ പഠന സമയത്തൊക്കെ കരണ്ട് പോകുന്ന സമയത്ത് ഇങ്ങനൊരു ബാക്ക് അപ്പ് ജനറേറ്റർ വെക്കുന്നുണ്ട് ആ സമയം കൂടുതൽ സമയം പിള്ളേർക്കാണെങ്കിലും പഠിക്കാൻ പറ്റുകയും ചെയ്യും അതിന് എന്തെങ്കിലും അധിക ചാർജ്ജുകളോ താരിഫ് നിരക്കുകളോ ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് പ്രത്യേകമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് അത് വൈദ്യുതി ബോർഡിനെ അറിയിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു മെസ്സേജ് ഇടുന്നത് അപ്പം സാറേ അതിനെക്കുറിച്ചൊന്ന് പ്രത്യേകം ഒന്ന് പറഞ്ഞു തരാമോ എങ്ങനെയാണ് ഇത് ഈ ബാക്ക് അപ്പ് ജനറേറ്റർ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് പ്രത്യേക ചാർജ്ജുകൾ ഈടാക്കോ എക്സ്ട്രാ ഇലക്ട്രിസിറ്റി ചാർജ് ആകുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അതൊന്നു പറഞ്ഞു തരാമോ സർ